ഇപ്പോഴത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് കാർഷിക മേഖലയിലുള്ളത് ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരു കർഷകൻ അവൻ്റെ ഒരു വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ധാന്യം അവന് ഒരു കാർഷിക കമ്പോളത്തിൽ എത്തിച്ച് എത്തി അല്ലെങ്കിൽ കൊണ്ടുപോയി കൊണ്ടുപോവാനുള്ളൊരു സൗകര്യമില്ല ഇത് ഗവൺമെൻ്റ് അറിഞ്ഞിട്ടും അവർക്കൊരു നല്ലൊരു സൗകര്യം ഏർപ്പെടുത്താൻ ഇതുവരെ ഗവൺമെൻ്റിനു സാധിച്ചിട്ടില്ല ഇതു മാത്രമല്ല കർഷകർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഇതുവരെ ഗവൺമെൻ്റൊരു പരിഹാരം കണ്ടുപിടിച്ചിട്ടില്ല അതിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ധാന്യം അവരൊരു കാർഷിക കമ്പോളത്തിൽ എത്തിക്കാനുള്ളൊരു സൗകര്യം അത് ഇതുവരെ ഒരു ഗവൺമെൻ്റിനും നടത്താൻ കഴിഞ്ഞിട്ടില്ല ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽത്തന്നെ ഒരു കാർഷിക വരുമാനമാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയ്ക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നതിൽ മുൻപ് മുൻപന്തിയിലുള്ളത് ആ ആ അതിനു സഹായിക്കുന്ന കർഷകർക്കൊരു നല്ലൊരു സൗകര്യം അല്ലെങ്കിൽ അവരുടെ ധാന്യം ഒരു കാർഷിക കമ്പോളത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ളൊരു സാമാന്യ സൗകര്യം ഗവൺമെൻ്റ് കർഷകർക്ക് നൽകുന്നില്ല